നമ്മള് മത്സ്യബന്ധനത്തിനൊക്കെ പോകുമ്പോ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ബോട്ടും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക അതിൻ്റെ എൻജിൻ ഒക്കെ നല്ല പവർഫുൾ ആണോ എന്ന് നോക്കും അതിന് ഓയില് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എണ്ണയും അതായത് ഡീസലും ആണെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അത് നമ്മൾ എപ്പോഴും മെയിനായിട്ട് കരുതേണ്ട ഒരു ആവിശ്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉൾ കടലിൽ ഒക്കെ പോയി കഴിഞ്ഞാല് അവിടെ പോയിട്ട് എൻജിൻ കംപ്ലൈന്റ്റ് ആകുക എൻജിൻ നിന്ന് പോകുക അങ്ങനത്തെയൊക്കെ പ്രശ്നം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് വരാൻ ഒക്കെ ഭയങ്കര പാട് പാടായിരുക്കും കാരണം നമുക്ക് വെള്ളം പോലും കിട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ബോട്ട് ഇപ്പോൾ ഓട്ട ഇല്ലാത്ത ബോട്ട് അങ്ങനത്തെ പലതരം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടിയില് ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബോട്ടിലേക്ക് വെള്ളം കയറാനും അപ്പം പിന്നെ വേറെ എന്തെങ്കിലും മീൻ വന്ന് തട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ സ്രാവ് കാര്യങ്ങളൊക്കെ വന്ന് തട്ടി കഴിഞ്ഞാൽ ബോട്ട് പെട്ടെന്ന് പൊട്ടി പോകുക അങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക ഇപ്പം നല്ല പലക ഒക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ള ബോട്ടുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉൾക്കടലിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം നല്ല ബോട്ടുകൾ ഒക്കെ ഉപയോഗിക്കുക നല്ല രീതിയിലുള്ള എൻജിനും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുക നമ്മള് എപ്പോഴും ഡീസലും പെട്രോളും ഒക്കെ ആണെങ്കിൽ കരുതുക ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം വരെ നമ്മള് ലോ ക്വാളിറ്റിയിൽ ഉള്ള മോട്ടറും കാര്യങ്ങളൊക്കെയായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പം നല്ല രീതിയിലുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്